ഹലോ ആരാണ് ആ നിങ്ങൾ ആ ഏത് ഏത് ബോട്ടിൽ കയറാൻ വേണ്ടിയാണ് ബോട്ടിൽ കയറാൻ പേടിയാണോ അപ്പോൾ നിങ്ങൾ എങ്ങനെ ബോട്ടിൽ കയറും ഓ സേഫ്റ്റി മെഷേഴ്സ് നിങ്ങൾ എന്നത്തേയ്ക്കാണ് വൽ ബുക്ക് ചെയ്തിട്ടുണ്ടോ അതോ ആറാം തീയതിത്തേയ്ക്ക് ആ ഓക്കെ എന്താണ് നിങ്ങളുടെ ജസ്റ്റ് ഫാമിലിയായിട്ട് വന്ന് കയറുകയാണോ അതോ ആ ഹാ ഓക്കെ അപ്പോൾ ആ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫെസിലിറ്റീസ് അറിയാൻ വേണ്ടിയാണോ

ഓക്കെ ആ ചേട്ടാ ഇതൊരു ബോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാക്സിമം പത്ത് പേര് അതായത് പാസൻഞ്ചേഴ് പത്ത് പേരും അല്ലാതെ സ്റ്റാഫ് അഞ്ച് പേരും പതിനഞ്ച് പേർക്ക് പോകാൻ പറ്റിയൊരു വലിയ ബോട്ട് ആണ് അതൊരു ഹൗസ്ബോട്ട് ആണ് അപ്പോൾ നമ്മളിത് എറൗണ്ട് ഒരു അ ഒരു ഒരു ഒന്നൊന്നര രണ്ട് ലക്ഷം രൂപയുടെ പണിത് പണി ചെയ്തു ഈ അടുത്തുതന്നെ നമ്മളിപ്പോൾ ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുടെ പണിചെയ്ത് ഇറക്കിയ ഒരു ബോട്ട് ആണ് സേഫ്റ്റീല് ആ അത്ര സെക്യുർ ആയിട്ടുള്ള ഫോണ് ആണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇപ്പോൾ വണ്ടിക്ക് അല്ലെങ്കിൽ ഒരു ബോട്ടിന് തീ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫയർ ആൻ റെസ്ക്ക്യൂ ഓ എന്നാ ഫയർ ആൻ റെസ്ക്ക്യൂന് വേണ്ടിയിട്ട് നമുക്ക് ബ്രോ തീകത്തിയാൽ പിന്നെ എന്താ ചെയ്യുക ഫയർ ആൻഡ് റെസ്ക്ക്യൂ ആ നമുക്കൊരു ഫയർ എസ്ടിങ്ങ്യൂഷർ ഉണ്ട് ഇപ്പോൾ നമ്മൾ മുങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുങ്ങി പോവാതിരിക്കാൻ വേണ്ടി അല്ല നമ്മൾ ഇപ്പോൾ മുങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്രക്കാർക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അല്ല മുങ്ങി പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കിടക്കും നിങ്ങളെ ആരെങ്കിലും വന്ന് രക്ഷിക്കും അല്ലേ പിന്നെ അല്ലേ പിന്നെ ഞാൻ വന്ന് രക്ഷിക്കണോ അപ്പം അല്ല രാക്ഷിക്കുന്നതിന് ഞാൻ പറയുകയായിരുന്നു മുങ്ങി പോവുകയില്ല കാരണം ഈ ബോട്ടിന് നല്ല വീഥി ഉള്ളത് കൊണ്ട് തന്നെ ഈ ബോട്ട് നല്ല സ്റ്റേബിൾ ആയിട്ട് തന്നെ വെള്ളത്തിൽ കിടക്കുന്നതാണ് പിന്നെ ഇത് മുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയുള്ള സേഫ്റ്റി മെഷേഴ്സ് ആ ബോട്ടിൽ തന്നെയുണ്ട് ഒരു കുഴപ്പവും ഇല്ല വാട്ടർപ്രൂഫ് ബോട്ട് ആണ് പേടിക്കേണ്ട വെള്ളം കയറിയാലൊന്നും പറ്റത്തൊന്നും ഇല്ല പിന്നെ നമുക്ക് നല്ലൊരു എന്താ പറയുക സെക്യൂരിറ്റി ഗാർഡ് രണ്ട് ഗാർഡ്സ് ഉണ്ട് നമുക്ക് ആ ബോട്ടിൽ തന്നെ അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളോ നിങ്ങളുടെ സാധനങ്ങളോ വസ്തുക്കളോ സാധന ജങ്കമങ്കങ്ങളോ എന്തെങ്കിലും ബോട്ടിൽനിന്ന് പുറത്ത് പോയി കഴിഞ്ഞ് അവർക്ക് നീന്താൻ അറിയാം അവർ ചാടി അവർ അത് എടുക്കുമ്പം നിങ്ങളാണ് വെള്ളത്തിൽ പോവുന്നത് എങ്കിൽ നിങ്ങളെ അവർ രക്ഷപെടുത്തും എല്ലാ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ആ ബോട്ടിലുണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങൾ ഭയങ്കര സേഫ് ആയിരിക്കും ആ ബോട്ടിൽ നിങ്ങൾ നിങ്ങളെ കൊണ്ട് തന്നെ തിരിച്ച് വരും അതാണല്ലോ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് നീന്താൻ അറിയത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് നീന്താൻ അറിയാം ഞങ്ങൾ നീന്തി നിങ്ങളെ രക്ഷിക്കും നിങ്ങൾ ഒന്നുംകൊണ്ടും പേടിക്കേണ്ട നിങ്ങൾ വെള്ളത്തിൽ പോവുകയില്ല പോയാൽ മാത്രമല്ലേ ഈ നീന്തലിൻ്റെ കാര്യം ആലോചിക്കേണ്ട കാര്യം ഉള്ളൂ നമ്മൾ ഇൻഡോർ ആയിട്ട് ബോട്ടിൻ്റെ അകത്തുള്ള പരിപാടികളേ ഉള്ളൂ ഔട്ട്ഡോർ പരിപാടികൾ വെള്ളത്തിൻ്റെ പുറത്ത് ഉള്ള നമ്മൾ നോക്കാറില്ല നമ്മൾ ഈ പാക്കേജിൽ അതില്ല ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏ നിങ്ങൾ ഒരു ഡേ ഫുൾ ആണോ അതോ ഹാഫ് ആണോ ഒരു ഡേ ഫുള്ള് ആണെങ്കിൽ നമ്മുടെ ഒരു ഒരാൾക്ക് ഫിഫ്റ്റി തൗസൻഡ് വെച്ചിട്ടാണ് ഒരാൾക്ക് വരുന്നത്

ആ അപ്പോൾ ആറാം തീയതി ഒന്ന് വിളിച്ചിട്ട് വരിക എന്നാലേ ഞങ്ങൾക്ക് റെഡിയാക്കി വെക്കാൻ പറ്റൂ ആ ഓക്കെ സീ യൂ താങ്ക്സ്